മറ്റു ഉത്തരവാദിത്തങ്ങളോടൊപ്പം ഉത്തരവാദിത്തങ്ങളോട് നമ്മുടെ ജീവിതത്തോടുമൊപ്പം തന്നെ ഒരു ഒരു ഹോബി പോലെ ഒരു ഒരു ഒരു നമ്മുടെ സ്വഭാവത്തിന്റെ തന്നെയൊരു ഭാഗമായിട്ട് നമുക്കൊരു ഉല്ലാസ ഇതൊരു ഹോബി പോലെ നമ്മൾ ഈ ഒരു തുന്നലിനെ കരുതുന്ന കരുതുകയാണ് ഞാൻ ചെയ്യാറ് കാരണം എനിക്കിപ്പം ഒരു സമയത്തൊരു വെറുതെ ഇരിക്കാനിഷ്ടമല്ല അപ്പം എനിക്കൊരു വെറുതെ ഇരിക്കേണ്ടൊരു അവസരം വരുമ്പോഴത്തേക്കിനും എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു സമയത്ത് എനിക്കൊരു ഒരു തുന്നലൊക്കെ ചെയ്ത് കുറച്ചുകൂടെ ആ സമയം കുറച്ചുകൂടെ യൂസ്ഫുൾ ആക്കി ഉപയോഗപ്രദമാക്കി ചെയ്യുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമാ അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും തുന്നലൊരു നല്ലൊരു കാര്യമായിട്ടെനിക്ക് തോന്നാറുണ്ട് കാരണം എനിക്കിപ്പം തുന്നിയൊരു കാര്യം എനിക്കൊരു ബാക്കി ഒരാളെ കാണിച്ച് കൊടുക്കുമ്പം അവർ അവരുടെയൊരു സന്തോഷം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെയതുപോലെത്തന്നെ അവരതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം കൂടും നമ്മളാ ഒരു സമയം നമ്മൾ വെറുതെ കളയുന്നില്ല നമ്മളിപ്പം റെസ്റ്റെടുക്കയാണെങ്കിൽപ്പോലും നമ്മളൊരു കുറച്ച് ക്ഷീണിച്ചിരിക്കുന്ന അവസരത്തിൽപ്പോലും നമുക്കിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇതിലിങ്ങനെ ഒരു വ്യത്യാസം കൊണ്ടുവരാം കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള തുന്നൽ രീതികൾ നമ്മൾ പഠിച്ചെടുക്കാം അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുമ്പോഴത്തേക്കിനും തന്നെ കുറച്ചുകൂടെ നമുക്കങ്ങ് വേറൊരു രീതിലേയ്ക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം നമുക്കിപ്പം എന്തേലും വിഷമം ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽപ്പോലും കുറച്ചുകൂടെ ഇങ്ങനത്തെ തുന്നലൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ കിട്ടാറുണ്ട് കുറച്ചുകൂടെ എല്ലാം കുറച്ചുകൂടെ നല്ല രീതിയിൽ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നുണ്ട്